പാടുമ്പോൾ നമ്മുടെ മുഖഭാവം കൊണ്ടും ശാരീരിക ഭാഷ കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്കൊത്തിരി ആകർഷകമാം വിധത്തിൽ നമുക്ക് പാട്ടിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ സംസാരിക്കുമ്പോഴും നമ്മുടെ മുഖഭാവം കൊണ്ട് സന്തോഷമുള്ള മുഖ ഭാവം കൊണ്ട് ഉള്ള അരിശപ്പെട്ടുള്ള സംസാരിക്കാതെ നല്ല രീതിയിൽ സംസാരിക്കുമ്പം എല്ലാവർക്കും അതൊത്തിരി ഒത്തിരി ഉന്മേഷം പകരുന്നു അതുപോലെ പാടുമ്പോഴാണെങ്കിലും നമ്മുടെ മുഖം എപ്പോഴും പ്രസന്നമതമായിരിക്കുക നല്ല സ്പുടതയോടു കൂടി പാടുക അങ്ങനെ അതുപോലെതന്നെ ശാരീരിക കൈയ്യെടുത്തു പാടുക അങ്ങനെ നമ്മുടെ ഓരോ മുഖഭാവങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് പാട്ടിനെ മെച്ചപ്പെടുത്താൻ അതൊക്കെ ഒത്തിരി പേരെ ഇതിലോട്ട് ആകർഷിക്കുന്നു നമ്മുടെ സംസാരം നമ്മുടെ പാടുമ്പോൾ നമ്മുടെ രീതി നമ്മുടെ ഒച്ച ശബ്ദം ശബ്ദം എത്ര മാത്രം മധുരമാണ് അതനുസരിച്ച് മനുഷ്യരിങ്ങനെ അതിൽ ലയിച്ചിങ്ങനെ ആനന്ദം കണ്ട് അവരറിയാതെ തന്നെ അവരാനന്ദം കണ്ടിട്ട് ഇങ്ങനെ അവരും അതിൻ്റെ കൂടെ പാടി പോകുന്നു അങ്ങനെയൊക്കെ നമ്മുക്ക് നമ്മുടെ പാട്ടിൻ പാടുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ രീതിയും കൈ ശരീരത്തിൻ്റെ ആംഗ്യ ഭാഷയിതൊക്കെ നിയന്ത്രിക്കാൻ അതിലൂടെ മറ്റുള്ളവർക്കൊത്തിരി ഒത്തിരി ആനന്ദം അതിൽ കണ്ടെത്താൻ പറ്റുന്നു ഇപ്പോൾ നമ്മൾ പാടുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മുഖം വികൃതവും നമ്മുടെ കയ്യും കാലും വേണ്ടാത്ത രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്താൽ ആർക്കും അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവരത് മടുത്തു പോകും അന്നേരം അവർക്കത് പെട്ടെന്ന് അവരത് മതിയാക്കി അവരവരുടെ വഴിക്കു പോകും അങ്ങനെ ആയാൽ നമ്മുടെ ഒരു പ്രവർത്തിയും വിജയിക്കാൻ പറ്റത്തില്ല അതുപോലെ ഏതു പ്രവർത്തി ചെയ്താലും നമ്മളാദ്യം എല്ലാവരും നമ്മുടെ മുഖമാണ് കാണുന്നത് നല്ല പ്രസന്നമായ മുഖം സന്തോഷമായ മുഖം മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുന്ന മുഖം ഇതൊക്കെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ പാട്ടിനു വലിയ ട്യൂണില്ലെങ്കിലും അതുപോലെതന്നെ പാട്ടു പാടുന്ന സമയത്ത് നമ്മുടെ ശാരീരിക ഭാഷ അതുപോലെ തന്നെ കൈ കൈ കൈ കൊണ്ടുള്ള ആംഗ്യങ്ങൾ കണ്ണിൻ്റെ ഇത് മുഖത്തിൻ്റെ ഭാവഭേദങ്ങൾ ഇതൊക്കെ കൊണ്ട് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്നു അതനുസരിച്ച് നമ്മൾ നമ്മുടെ പാട്ടൊത്തിരി മെച്ചമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ട്യൂണൊന്നും വലിയ വലിയ ഇതില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ആകർഷണമാകത്തൊക്കെ വിധത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനൊക്കെ നമ്മളൊത്തിരി പരിശ്രമിക്കും നമ്മൾ ആദ്യം പാടുമ്പോൾ ഒത്തിരി ഇതായില്ലെങ്കിലും പിന്നെ ഇങ്ങനെ പരിശ്രമിച്ചു നമ്മളെന്തിനും പരിശീലനം പ്രയത്നം പ്രയത്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലും വിജയിക്കാൻ പാട്ടിലായാലും പ്രസംഗത്തിനായാലും നമ്മൾ പരിശീലിക്കാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല അതു പോലെ ആദ്യം നമ്മുടെ പാട്ട് കേൾക്കുന്നവർക്ക് അതിഷ്ടപ്പെടത്തില്ലായിരിക്കും പിന്നെ നമ്മളത് ഇങ്ങനെ വീഡിയോ എടുത്തു കണ്ടു കഴിയുമ്പോൾ നമുക്കൊത്തിരി മാറ്റം അതിൻ്റെ ടൂണായാലും അതിൻ്റെ ആംഗ്യങ്ങളായാലും മുഖത്തെ ഭാഷയായാലും കണ്ണിൻ്റെ ആയാലും പുരികത്തിൻ്റെ ആയാലും അതൊക്കെ നമുക്കൊത്തിരി മാറ്റം വന്നാൽ നമു നമ്മുടെ പാട്ടിലേക്കൊത്തിരി പേര് ലയിച്ചു വരും അവരതിൽ ആനന്ദം കണ്ടെത്തും അങ്ങനെ പിന്നെയും കൂടുതൽ കൂടുതൽ കാണാനും അത് നമ്മുടെ പാട്ട് ആസ്വദിക്കാനും ആയിട്ട് അവർ മുന്നോട്ട് അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇതു ചെയ്യാൻ പറ്റില്ല അതു കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഏതിനും ഏതിനും പരിശ്രമം ഉണ്ടെങ്കിൽ എന്തിനെയും നമുക്ക് കീഴടക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യം ചെയ്യുമ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുക എന്നിട്ടതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പാട്ടിലാണെങ്കിലും പാട്ടിൻ്റെ രീതിക്കാണെങ്കിലും നമ്മുടെ ശാരീരിക ഭാഷയുടെയും മുഖഭാഷയുടെയും രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നു നമ്മൾ തന്നെ പരിശ്രമിക്കുക അല്ലാതെ അല്ലെങ്കിൽ നമ്മളോട് അടുപ്പമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുള്ളവർ നമുക്കത് പറഞ്ഞു തരും അന്നേരം നമുക്കത് ഉൾക്കൊള്ളുവാനും മാറ്റം വരുത്തുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ മാറ്റങ്ങളും പരിശ്രമങ്ങളും മൂലമാമേ നമുക്കിത് വിജയിക്കാനും മുന്നോട്ടു പോകാനും സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളൊന്നും പരിശ്രമിക്കാതിരുന്നാൽ നമുക്കൊന്നും സാധിക്കുകയില്ല പരിശ്രമിച്ചീടുകിൽ എന്തിനെയും നമുക്ക് വശത്താക്കിയിടാം അതു പോലെ നമുക്കറിയാം അറിയപ്പെടാത്ത മേഘലയായാലും അറിയപ്പെടാത്ത അറിഞ്ഞു കൂടാത്ത ഒരു ഓരോരോ ഒരു പണിയാണെങ്കിലും നമ്മൾ പരിശ്രമിക്കും തോറും നമുക്കൊത്തിരി ഒത്തിരി ആനന്ദവും മുന്നോട്ടു പോകാനും പറ്റും അതിലുയർച്ചയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാനും സാധിക്കും